വാർത്തകളിൽ എന്തെങ്കിലും സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഉണ്ട് മാധ്യമങ്ങളിൽ നിരന്തരം ഉയർത്തിക്കാട്ടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് പഴയകാലത്തിലെ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതായിരുന്നു സാമൂഹീയ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടിയിരുന്ന സമൂഹത്തെ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടിയിരുന്ന എന്നാൽ ഇന്നുള്ള മാധ്യമങ്ങൾ കാണിക്കുന്ന പഴയ എന്ന് ഇന്നുള്ള മാധ്യമങ്ങളുടെ സൃഷ്ടി എന്നു പറയുന്നത് ആവശ്യമില്ലാത്ത കഥകൾ കണ്ടെത്തിക്കൊണ്ട് അത് ജനത്തെ വഴിതിരിപ്പിച്ചു വിട്ടുകൊണ്ട് ഒരു പുതിയ സംസ്കാരത്തിനു പകരം ഒരു ഒരു അഥോലോക സംസ്കാരം സൃഷ്ടിച്ചെടുക്കുന്നതിനെക്കുറിച്ചാണ് മാധ്യമങ്ങൾ ഇന്ന് കൂടുതൽ ശ്രദ്ധതിരിക്കുന്നത് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരുകൾ വിവിധ തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും അതിനെതിരെ ഉള്ള ചില നടപടികളിലൂടെ കുൽസിതമായ നടപടി അതുപോലെ ഭരണത്തിൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള മോശമായ പ്രവർത്തനങ്ങളിൽ അതിനെ കടത്തി വെട്ടിക്കൊണ്ടുള്ള ചില നുണപ്രചരണങ്ങൾ പിന്നെ അതുപോലെ സമൂഹത്തിൽ വരുന്ന പല പല പല രീതിയിലുള്ള സമൂഹത്തെ സമൂഹത്തിനുള്ള ചില നേരായ കാഴ്ച്ചപ്പാടുകൾ നൽകേണ്ട കാര്യങ്ങളല്ല ഇന്നത്തെ മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്ന ഒരു കാഴ്ച്ചപ്പാടിലേക്കാണ് അത് കൂടുതൽ കൂടുതൽ സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കുന്നതിനു കൂടുതൽ പരസ്യങ്ങൾ കണ്ടെത്തുകയും അവയെ പ്രോത്സാഹിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക എന്ന് ഉള്ളൊരു സാഹചര്യമല്ല ഇന്ന് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തീർത്തും അപലപനീയമായൊരു ഒരു കാര്യമാണ് പിന്നെ തിരിച്ച് പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ സമൂഹത്തെ കൂടുതൽ പ്രതിബദ്ധതയുള്ളൊരു യുവതലമുറയെ വാർത്തെടുക്കാനല്ല നോക്കുന്നത് പകരം എപ്പോഴും മാധ്യമങ്ങളിൽ വാർത്തകൾ എടുത്തു നോക്കിയാൽ പത്ര മാധ്യമങ്ങളിൽ വാർത്തകൾ എടുത്തു നോക്കിയാൽ കൊലയും പിന്നെ സാമൂഹ്യ വിരുദ്ധമായ പല പ്രവർത്തനങ്ങളുടെ കുറച്ചൂകൂടി വാർത്തകൾ കൊണ്ട് മാത്രമാണ് തിക്കി നിറയ്ക്കുവാനായിട്ട് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ യുവതലമുറയ്ക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സംഭവങ്ങൾ അല്ല വാർത്തകളായി ഇന്ന് ലോകത്തിൻ്റെ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലായെങ്കിൽ വരും തലമുറയ്ക്ക് വലിയൊരു വിപത്തിലേക്ക് തന്നെ എത്തിച്ചേക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ വളരെ മുൻകൂട്ടി ലക്ഷ്യബോധത്തോടുകൂടി ഒരു വരും തലമുറയെ പുതുതലമുറയെ സൃഷ്ടിക്കുന്നതിനുവേണ്ടി മാധ്യമം വലിയൊരു പങ്കു വഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു അയിപ്രായം ഉള്ളത്